ഹലോ ക്യാബ് ഏജൻസിയല്ലേ ഞാനൊരു രണ്ട് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നേ ആ എൻ്റെ പേര് ആ അതെയതേയതേ എൻ്റെ പേര് പിന്നെ രാധ എന്നാണേ ആ ഒന്ന് ചെക്ക് ചെയ്യുമോ ആ അപ്പം രണ്ടാം തീയ്യതി രണ്ടാം തീയ്യതി അപ്പം എനിക്ക് ബുക്കിങ്ങൊന്നു ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാരുന്നേ അപ്പം ഞങ്ങൾക്കിവിടെ ഹോസ്പിറ്റൽ കേസ് കുറച്ച് വന്നു അപ്പം വീട്ടിലാരും ഇല്ലാണ്ടായി അപ്പോൾ കുട്ടികളും മക്കളൊക്കെയുണ്ടേ അപ്പം അവരെയൊന്ന് നോക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ എന്തായാലും മൂന്ന് ദിവസം ഒരു അഞ്ചു ദിവസം ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടെന്തായാലും ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോവും അപ്പോൾ നിങ്ങളുടെ ക്യാബ് തന്നെ ബുക്ക് ചെയ്യാം അപ്പം ഇപ്പം എനിക്ക് ക്യാബ് ബുക്ക് ക്യാബിൻ്റെ ആവശ്യമില്ല അപ്പം അതൊന്ന് പിന്നെ പറയാൻ വേണ്ടിയാരുന്നു വിളിച്ചത് ആ അപ്പം പൈസ റീഫണ്ടായിട്ട് കിട്ടുമോ ആ കിട്ടുമല്ലേ അപ്പം അതൊന്നെനിക്ക് സെൻ്റ് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പറ് നിങ്ങളുടെ ഇതിൽ വാട്സ്ആപ്പ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അയച്ചു തരട്ടേ ആഹ് ഓക്കേ എന്നാൽ